സാമ്പത്തിക വാർത്തകൾക്ക് മാത്രമായി പല പത്രങ്ങളും വാർത്ത ചാനലുകളുമുണ്ട് അത് ഏതൊക്കെയാന്ന് വച്ചാൽ സി റ്റി ബി എൻ സി ഇ റ്റി നൗ സീ ബിസിനസ്സ് ടൈംസ് ഓഫ് ഇന്ത്യ അങ്ങനെ അങ്ങനെ പല വാർത്തകളും പല വാർത്ത ചാനലുകളും അതറിയാൻ വേണ്ടി ഉണ്ട് ഞാൻ എങ്ങനെ സാമ്പത്തിക വാർത്തകൾ അറിയുന്നതെന്ന് വച്ചാൽ ഫോണ് ഫോണിലൂടെയാണ് അതായത് ഇൻറ്റർനെറ്റ് വഴി ഫോണിലൂടെയാണ് ഈ സാമ്പത്തിക വാർത്തകൾ അറിയുന്നത് കൂടുതലും സാമ്പത്തിക വാർത്തകൾ നമ്മൾ ഫോണിലൂടെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ അറിയാനും ഉള്ള ആ ഇതുണ്ട് നമുക്കതിനെ കുറിച്ച് പഠിക്കാനും എല്ലാം ഫോൺ നല്ലൊരു ഉപകരണമാണ് അതേപോലെ സാമ്പത്തിക വാർത്തകൾ ഇഷ്ടം പോലെ ഫോണിലുണ്ട് നമുക്കത് ഒത്തിരി കാണാൻ പറ്റും നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് അതുമായിട്ടൊക്കെ നമുക്ക് ബിസിനസക്കെ ചെയ്യാൻ ഉണ്ടെങ്കിലും അതൊക്കെ അതിനെ സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ കാണുന്ന നല്ലതാണ് ബിസിനസ്സ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് സാമ്പത്തിക വാർത്തകളൊക്കെ ഇഷ്ടം പോലെ ചാനലുകളും വാർത്തകളുമുണ്ട് ഇതിനായി ഇതുമായിട്ട് ഇതിന് വേണ്ടി മാത്രമുള്ള ചാനലിനാണ് ഈ ടി നൗവ് അതേപോലെ സി എൻ ബി സി സി ബിസിനസ്സ് ടൈംസ് ഇന്ത്യ അങ്ങനെയൊക്കെ കുറെ വാർത്ത ചാനലുകൾ അതേപോലെ ഞാൻ ഈ ഈ വാ എക്കണോമിക്സ് സാമ്പത്തിക വാർത്തകളെ കുറിച്ച് അറിയുന്നത് ഫോണിലൂടെയാണ് ഞാൻ ഫോണിൽ സെർച്ച് ചെയ്യത്തെ ഉള്ളൂ അപ്പം നമുക്കാണെങ്കിൽ ഒത്തിരി ഒത്തിരി നമുക്ക് പല സോഴ്സുകളിൽ നിന്ന് പല ഭാഗത്ത് നിന്നും നമുക്ക് സാമ്പത്തിക വാർത്തകൾ സംബന്ധിച്ച് കിട്ടും ഇത് പിന്നെ ഈ ഇതെല്ലാം നമുക്ക് കൂടുതൽ നമുക്ക് ബിസിനെസ്സ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കും ഫോണിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഏത് കാര്യം വേണമെങ്കിലും ഫോണിലൂടെ അറിയാം നമുക്ക് സാമ്പത്തിക വർത്തകൾ അറിയാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഉപയോഗിക്കുന്നത് ഫോണാണ് ഫോ ഗൂഗിള് ഫേയ്സ് ബുക്ക് യൂട്യൂബ് അങ്ങനെയൊക്കെ ഇതിനകത്തൊക്കെ സെർച്ച് ചെയ്ത് വരുമ്പം നമുക്ക് വാർത്തകൾ വരും അതിനകത്ത് നമുക്ക് സാമ്പത്തിക വാർത്തകൾ ഇഷ്ടംപോലെ കിട്ടും അത് അത് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക നിലവാരോം ഏതൊക്കെ കാര്യങ്ങളിലാണ് നമുക്ക് ഏതൊക്കെ ഉല്പന്നങ്ങൾക്കാണ് പൈസ കൂടുതൽ കുറവ് നമ്മൾ എന്ത് ചെയ്താൽ രക്ഷപ്പെടും അങ്ങനെ എല്ലാം നമുക്ക് സാമ്പത്തിക വാർത്ത എക്കണോമിക്ക് ന്യൂസിലൂടെ നമുക്ക് മനസ്സിലാവും നമ്മളിപ്പം എന്തെങ്കിലുമൊക്കെ ബിസിനസ്സ് ചെയ്യുന്ന ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ ഇന്ത്യയുടെ സമ്പദ് വിവരങ്ങളെ കുറിച്ചാണ് അറിയാൻ അതിന് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് ഈ സാമ്പത്തിക വാർത്തകൾ വായിക്കാന്നതാണ് നമുക്കത് ഒത്തിരി ഉപകാരപ്പെടും നമുക്ക് പല പല കാര്യങ്ങൾക്കത് ഉപകാരപ്പെടും അതേപോലെ ഏറ്റവും കൂടുതലും ഇതിനെ സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ വരുന്ന ന്യൂസ് പേപ്പർ പത്രം വാർത്തകൾ എന്ന് പറഞ്ഞാൽ പത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സി എൻ ബി സി ഇ റ്റി നൗവ് ടൈംസ് ഓഫ് ഇന്ത്യ അങ്ങനെ അങ്ങനെ കുറെ വാർത്തകൾ പത്ര വാർത്തകളുണ്ട് നമുക്കതെല്ലാം അതേപോലെ അതിൻ്റെ തന്നെ ചാനലുകളിലും നമുക്ക് സാമ്പത്തിക വാർത്തകളെ കുറിച്ച് അറിയാം അങ്ങനെ ഒത്തിരി അതുമല്ല കൂടുതലും ഫോണിലൂടെയാണ് ഞാൻ നോക്കാറുള്ളത് നമുക്കപ്പം അതിനെ കുറിച്ച് നമ്മൾ ഇന്ത്യയിലെ സമ്പദ് വിവരങ്ങളെ കുറിച്ച് അറിയാൻ പറ്റും എല്ലാം നല്ല നല്ല കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റും നമ്മുടെ ഫോണിലൂടെ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് ഫോണ് വെച്ച് ഉപയോഗിക്കാം ഇൻറ്റർനെറ്റ് വെച്ച് സാമ്പത്തിക വിവരങ്ങളൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ ഇന്ത്യയിലെ സാമ്പത്തിക വിവരങ്ങളൊക്കെ അറിഞ്ഞാൽ നമുക്കത് അനുസരിച്ച് ഓരോ കാര്യങ്ങളെയും ചെയ്യാൻ പറ്റുന്നു അതുമല്ല ഓരോ ഉല്പന്നങ്ങൾക്കൊക്കെ ഇത്ര പൈസ ഓരോന്നും ഓരോന്ന് ഓരോന്ന് അങ്ങനെ അറിഞ്ഞ് നമുക്ക് ഒത്തിരി സമ്പദ് വിവരങ്ങളെ കുറിച്ച് സാമ്പത്തികമായിട്ട് നമുക്ക് ഇഷ്ടം പോലെ വളരാൻ പറ്റും അങ്ങനെ സമ്പദ് വാർത്തകൾ സാമ്പത്തിക വർത്തകളൊക്കെ ഞാൻ വായിക്കാറുള്ളത് ഞാൻ അറിയാറുള്ളത് മൊത്തം ഫോണിലൂടെയാണ് അത് ഏറ്റവും നല്ല ഉപകരണമാണ് നമുക്കിപ്പം പത്രം വായിക്ക വാങ്ങാൻ പൈസ ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ ന്യൂസ് ചാനലിപ്പം ടീ വികളിലും പൈസ കൊടുക്കണം അതിനൊന്നും പൈസ ഇല്ല എങ്കിൽ നമുക്ക് ഫോണിൽ ഒറ്റ നെറ്റ് ചെയ്ത് അപ്പം ചാർജ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഉപകാരപ്പെടും അപ്പം ഏറ്റവും നല്ല മാർഗ്ഗം ഫോണിലൂടെ കാണുന്നതാണ് എനിക്ക് എന്ത് കൊണ്ടും അതാണ് നല്ലത്